കഴിഞ്ഞ ഒരു രണ്ടു മാസം മുന്നേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഏപ്രിൽ ഒക്കെ ആവുമ്പോഴാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ഹൈക്കിങ് നടത്തിയത് എനിക്ക് ഇങ്ങനെ കൂട്ടത്തോടെ ഹൈക്കിങ് നടത്തുന്നതാണിഷ്ടം എൻ്റെ കൂടെ പഠിച്ചവരുടെ കൂടെയാണെങ്കിൽ അത്രയും സന്തോഷം ഒറ്റക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഒറ്റക്ക് ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ ഒറ്റക്ക് നടന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഭയങ്കര വിജനതയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും ഞങ്ങൾ കൂട്ടത്തോടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു അനുഭവമായിരിക്കും അത് തരുക നമ്മൾ മെയിൻ ആയിട്ട് പോയത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് അതായത് സുഹൃത്തിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ കുറവാണ് ഒരു ഒരു മലേൻ്റെ മുകളിലാണ് എൻ്റെ സുഹൃത്തിൻ്റെ വീട് എന്ന് പറയുന്നത് വയനാട്ടിലാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ നടന്ന് ഞങ്ങൾ കൂട്ടത്തോടെ അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നടന്നിട്ടാണ് പോയത് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇടവഴിയാണ് രണ്ട് സൈഡിലും കുറേ തേയില തോട്ടവും അതുപോലെ തന്നെ നല്ല പച്ചപ്പും സ്കൈ എന്ന ആകാശമെന്ന് പറയുന്നത് ഭയങ്കര കൂൾ ആയിട്ടുള്ള ടൈം ആയിരുന്നു അന്നേരം ഒരു ചൂടും ഇല്ല തണുപ്പും ഇല്ലാത്ത കാലാവസ്ഥയിൽ ഞങ്ങളിങ്ങനെ കൂട്ടത്തോടെ നടന്ന് പോകുന്നതെന്ന് പറയുമ്പം വളരെ നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് തന്നത് ഏറ്റവും മനോഹരമായ യാത്രയായിരുന്നു അത് എപ്പോഴും കൂടെ കൂട്ടുകാരുണ്ടാകുമ്പോൾ ഹൈക്കിങ് നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ട്ടപെടുന്നവരുണ്ടാവും പക്ഷേ എനിക്ക് കൂടുതൽ താൽപര്യം എല്ലാവരും കൂടി ഒരുപാട് സംസാരിച്ച് കഥകൾ പറഞ്ഞ് പാട്ടുപാടി അങ്ങനെ ഒരു അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് ദൂരെ നമുക്ക് നടക്കാൻ പറ്റും ഒരിക്കലും നമുക്ക് ആ തളർച്ച തോന്നില്ല ഇപ്പം എത്ര കിലോമീറ്റേഴ്സ് വേണം അന്ന് ഞങ്ങൾ നടന്നത് ഒരു അഞ്ച് കിലോമീറ്റർ ആണ് ആ അഞ്ച് കിലോമീറ്റർ ഞങ്ങൾ ഒരുമിച്ച് നടന്ന് സംസാരിച്ചു ഒരുപാട് കഥകൾ പറഞ്ഞു സിനിമ കഥകൾ പറഞ്ഞു നാട്ടിലെ കഥകൾ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു നടന്നതു കൊണ്ടും അതുപോലെ തന്നെ കുറച്ച് പാട്ട് പാടി നടന്നതുകൊണ്ടും നമുക്കൊരിക്കലും അത് ഒരു എന്താണ് പറയുക അത്രയും ദൂരമാണെന്ന് അനുഭവപ്പെട്ടിട്ടേ ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കുന്നത് കൂട്ടത്തോടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്